ആരോഗ്യം നിലനിര്ത്താന് പിന്നേ നമ്മള് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വച്ചാല് മെയിന് ആയിട്ടും നമ്മള് മൂന്നു നേരമുള്ള ഭക്ഷണം സമയത്തിനു കഴിക്കുക ഇപ്പോൾ രാവിലെ ഒരു എട്ടു മണിയാ വുമ്പോഴത്തേന് കഴിക്കുക ഉച്ചക്ക് ഒരു ഒരുമണി ഒന്നരക്കുള്ളില് കഴിക്കുക രാത്രി അതായത് നമ്മള് ഒരു എഴുമണി ഏഴര എട്ടുമണിക്കുള്ളില് കഴിക്കുക പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് രാത്രി കഴിക്കുമ്പം ഞാ പിന്നേ നമ്മള് കിടക്കുന്നതിന്റെ രണ്ടു മണിക്കൂര് മുന്നേ കഴിക്കുക എന്നിട്ട് മാത്രമേ നമ്മള് ഉറങ്ങാന് പാടുള്ളൂ പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് പിന്നേ അതുപോലെ എക്സസൈസ് ശരിയായ വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിനൊന്നും ഒരു അസുഖവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ശരീരമൊക്കേ നല്ല ആരോഗ്യവും ഇതുവായിരിക്കും ശരീരത്തിനു ഒരു കുഴപ്പവും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പിന്നേന്നു വച്ചിട്ടുണ്ടെങ്കില് നമ്മള് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാം കൂടുതലായിട്ട് കഴിക്കാന് ശ്രമിക്കുക പുറത്ത് ഹോട്ടലുകളിലും ഒന്നും പോയിട്ട് അങ്ങനെ കഴിക്കാതിരിക്കുക അങ്ങനെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവര് അത്ര വൃത്തിയില്ലൊന്നും അല്ല വയ്ക്കുക ഫ അപ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കേ അത് ഭയങ്കര ഹാനികരമായിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് നല്ലതാണ്